ഹലോ ഇത് ജനേഷ് സൂപ്പർ മാർക്കറ്റ് കാൻ ഐ ഹെല്പ് യു

അ ഓക്കെ സാർ ഞങ്ങൾടെ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് പെരുന്നാൾ പ്രമാണിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് പിന്നെ അ ഓക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണത് മറ്റ് വാഷിംഗ് മെഷീന് പത്ത് ശതമാനം ടു അമ്പത് ശതമാനം വരെ ഓഫറുണ്ട് അതെ എല്ലാം ബ്രാൻഡഡ് കമ്പനീസിൻ്റെ വാഷിംഗ് മഷീൻസാണ് വരുന്നത് ഫ്രിഡ്ജിന് ഇരുപത് ടു എൺപത് ശതമാനം വരെയുണ്ട് ഇലക്ട്രോണിക്സ് അല്ലാണ്ട് നമുക്ക് ഗ്രോസറി വരുന്നുണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും വരുന്നുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് നമ്മുടെ ഷോപ്പില് വരുന്നുണ്ട് അ അ വെജിറ്റബിൾസുംമുണ്ട് അതെ പലവ്യഞ്ജനങ്ങളും ഉണ്ട് എല്ലാത്തിനും വെജിറ്റബിൾസിന് പത്ത് ശതമാനം ഓഫറുണ്ട് ഇല്ല ഇല്ല സാർ നമ്മടെ ഇത് സ്പെഷ്യൽ ഓഫറാണ് ഇത് ഏറ്റവും ഗുഡ് ക്വാളിറ്റി സാധനമാണ് ഇല്ല നമ്മളൾടെ എല്ലാം ക്വാളിറ്റി ഐറ്റംസാണ് എല്ലാം വരുന്നത് നമ്മൾ ഡയറക്റ്റ് ഫാർമേഴ്സിൻ്റെ അടുത്തിന്ന് മേടിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടരുന്നതാണ് കെമിക്കലൊന്നും നമ്മള് യൂസെയ്തിട്ടില്ല അതെ അതെ നമ്മള് നമ്മള് ഇവിടുനന്നെയാണ് കൊണ്ട് പോകുന്നത് വീട്ടിലേക്ക് അരി അരിക്കൊക്കെ നമുക്ക് പുറമേ ഉള്ള മാർക്കറ്റ് വിലേനേക്കാട്ടും കുറവാണ് വരുന്നത് അതെ എല്ലാത്തിനും സ്പെഷ്യൽ ഓഫറ് വരുന്നുണ്ട് അ കൂടുതല് നമ്മക്ക് അ പിന്നെ നമ്മക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് സമ്മാന കൂപ്പണുണ്ട് പിന്നെ അഡീഷണൽ ഗിഫ്റ്റുകൾ വരുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ആൾട്ടോ കാറാണ് അതല്ലാണ്ട് ഡെയ്ലി നറുക്കെടുപ്പിണ്ട് അപ്പോൾ അല്ലാണ്ടും ഗിഫ്റ്റുകളുണ്ട് ഈ ഓഫർ പെരുന്നാള് വരെയുള്ളൂ ഈ മുപ്പതാം തീയതി വരേ വരുന്നുള്ളൂ ഓക്കെ ഓക്കെ താങ്ക്യൂ സാർ